തീർച്ചയായിട്ടും കുട്ടികളുടെ മെച്ചപ്പെട്ട വികസനത്തിനു വേണ്ടി പ്രാദേശിക ഭാഷയിൽ ടിവിയിലും ഓൺലൈനിലും ഒക്കെ കൂടുതൽ വിദ്യഭ്യാസപരമായ രീതികൾ വേണം എന്ന് നമുക്ക് തോന്നാറുണ്ട് കരണ്ട് കുട്ടികൾക്ക് കുറച്ചും കൂടെ കൂടുതൽ പഠിക്കാനും ഒക്കെ ലോകത്തെ പറ്റിയും മറ്റു പ്രാദേശിക കാര്യങ്ങളെ പറ്റിയും തനഹാ കൂടുതൽ അറിവുകൾ കിട്ടാനും പുതിയ ടെക്നോളോജികൾ ഉണ്ട് അതിനെ പറ്റി അവർക്ക് അറിയാൻ സാധിക്കണം അത് ഈ പ്രാദേശിക ഭാഷയിലാകുമ്പം കുറച്ച് മെച്ചമായിരിക്കും കുറച്ചും കൂടെ അവർക്ക് പഠിക്കാൻ അവർക്ക് കഴിയും കരണ്ട് സംസാര ഭാഷ ശരിയാവുന്നില്ല കുറച്ചു കൂടെ ഇപ്പോഴും കൂടുതൽ കൂടുതൽ ആളുകളും പ്രത്യേകിച്ച് പ്രാദേശികമായിട്ടുള്ള ഭാഷകളെല്ലാം കൂടുതൽ ആ കുട്ടികളും എപ്പോഴും സംസാരിക്കാറുള്ളത് അപ്പം ഓൺലൈനായിട്ട് കൂടുതൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ വേണമെന്നുള്ളത് ഒരു നല്ല കാര്യം ആണ് കരണ്ട് ഇവർ കുറച്ച് ശ്രദ്ധ ചെയ്തു കൂടുതൽ ശ്രദ്ധീകരിക്കാം പിന്നെ അവർക്ക് ഒരു സൈലൻ്റായിട്ട് ഒറ്റ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ഏകാന്തമായിട്ട് അവർക്ക് സംസാരിച്ചു അല്ലെങ്കിൽ അവ കണ്ടു പഠിക്കാൻ സാധിക്കും അതൊരു ഗുണകരമായ കാര്യങ്ങളാണ് കുട്ടികളുടെ എല്ലാ എല്ലാ കുട്ടികളും ഇപ്പം പ്രാദേശിക ഭാഷയിൽ ഓൺലൈനായിട്ട് വിദ്യാഭ്യാസ കാര്യങ്ങൾ മാത്രം അല്ലല്ലോ ലോകത്ത് നടക്കുന്ന ഓരോ സംഭവവികാസങ്ങളിലൂടെ അവർക്ക് അറിയാൻ കഴിയുന്നു കരണ്ട് മനുഷ്യർ ലോകത്ത് നടക്കുന്ന മോശപ്പെട്ട കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നന്മ തിന്മകൾ തിരിച്ചറിയാനായിട്ടൊക്കെ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ കുട്ടികളൊക്കെ മറ്റ് ശല്ല്യം ഇല്ലാതെ വീട്ടിൽ ഏകാന്തമായിട്ട് റൂം മുറിയിലോ മറ്റോ ഇരുന്ന് അവർക്ക് ഇത് ഹൃദ്യമായിട്ട് വായിക്കാനും അത് നോക്കി നോട്ട് ചെയ്യാനും ഒക്കെ സമയം കിട്ടും അല്ലാണ്ട് ഇന്നത്തെ തിരക്കിൽ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന അറിവോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇരുന്ന് അവർക്ക് കാറ്റിൻ്റെ കുറവോ അല്ലെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം ക്ലാസ്സിലിരുന്ന് പഠിക്കുമ്പം പക്ഷെ ഇതാകുമ്പം അങ്ങനെ അല്ല വീട്ടിലാവുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഓർമ്മ വച്ചെടുക്കാനും ആ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് ഈ ഓൺലൈൻ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ഒക്കും അപ്പോൾ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നത് നല്ലതായിരിക്കും യാത്ര ബുദ്ധിമുട്ടില്ല യൂണിഫോം വേണ്ട അവർക്ക് അങ്ങനെ പല പല കുറച്ചും കൂടെ അവർക്ക് ആയാസകരമായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും പിന്നെ എന്തെങ്കിലും റെഫറൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഉടനെ അവർക്ക് ബുക്ക് ചെയ്യുന്നത് നോക്കി അതിൽക്കൂടെ അവർക്ക് അവരുടെ തെറ്റുകൾ തിരുത്താം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും പ്രാദേശിക ഭാഷയിലായിരിക്കും ടിവിയിലും ഓൺലൈനിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് ആണ് എൻ്റെ അഭിപ്രായം കുട്ടികൾക്ക് സ്വസ്തമായിരുന്ന് പഠിക്കാനും അറിവ് നേടാനും പ്രാദേശിക ഭാഷയാകുമ്പോൾ അത് നന്നായിരിക്കും അതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് കൂടുതൽ ടിവിയിലും മറ്റും ഓൺലൈനിൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്